അതെ അല്ലെ നമ്മുടെ ഇപ്പോൾ ന്യൂ ജീവൻ പറഞ്ഞിട്ടൊരു പുതിയൊരു പദ്ധതി വന്നിട്ടുണ്ട് ഇൻഷുറൻസിൻ്റെ നല്ലൊരു ഇൻഷുറൻസ് ആണ് ലൈഫിൻ്റെ ബന്ധപ്പെട്ട നല്ലൊരു ഇൻഷുറൻസ് ആണ് അപ്പോൾ അത് മതിയാകുമോ ആ ന്യൂ ചെയ്യുവാൻ നമ്മടെ ഗവണ്മെന്റ് ഗവണ്മെന്റിൻ്റെ തന്നെയാണ് അത് ഇപ്പോൾ പുതിയൊരു ഇൻഷുറൻസ് പറയണത് ഇതാണ് പിന്നെയൊക്കെ പഴയ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പോലെ പഴയ ഇൻഷുറൻസ് ആണ് ഇപ്പോൾ പുതിയത് വന്നിട്ടും അതേപോലെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒര് ഇൻഷുറൻസ് നമ്മളെ കൊണ്ട് താങ്ങുന്ന ഒര് ഇൻഷുറൻസെന്ന് പറയണത് ഇതാണ്

സ്കീംമ് അറിഞ്ഞിട്ട് നമുക്കിപ്പം അത് വർഷത്തിലാണ് അടവ് വരുന്നത്

വർഷത്തിലൊരിക്കലാണ് അടവ് വരുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെ അടവായിട്ട് വരുന്നത്

ആയിരം രൂപ വെച്ചിട്ട് അതെ ഇതിന് ഇപ്പോൾ ഇ ഇത് ക്ളൈമിയാ ക്ളൈമും കാര്യങ്ങളൊക്കെ വെരുന്നത് നിങ്ങളിപ്പോൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസാണ് ആക്സിഡൻറ്റ് പറ്റിയെ ഇല്ലെങ്കിൽ ആ ആക്സിഡന്റ് പറ്റിയിട്ടുള്ള മരണത്തിനാണ് നമുക്കീ ഇൻഷുറൻസ് ക്ളൈമ് ചെയ്യാൻ പറ്റുന്നത് അതെ റോഡ് ആക്സിഡന്റ് അതേപോലെ എന്താക്സിഡൻ്റലായിട്ട് എന്ത് പറ്റുവാണെങ്കിലും നമുക്ക് ഈ ഇൻഷുറൻസ് ക്ളൈമ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ അതെ നമുക്ക് ഈ ഇൻഷുറൻസ് അപ്പോൾ ക്ലൈമ് ചെയ്യാം നമുക്ക് പത്ത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ക്ലൈം തുക കിട്ടും ആക്സിഡന്റ് ആവാണെങ്കിൽ ആള് മരണപ്പെടുവാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ കിട്ടും നോമിനിക്ക് കിട്ടും

ആ എമൗണ്ട് കിട്ടും അതാ അതേപോലെ നിങ്ങളിനിയിപ്പോൾ ആക്സിഡന്റ് പറ്റി ഇതിപ്പോൾ ഒരു പകുതി തളർന്ന് പോയാൽ അല്ലെങ്കിൽ ശരീരം മാത്രം തളരുവൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പഴും പത്ത് ലക്ഷം രൂപ കിട്ടും ജീവനുണ്ട് ശരീരം മൊത്തം തളർന്നു ഒന്നിനും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ കിടപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ അല്ല ആക്സിഡന്റ് അല്ലാതെ അല്ല ആക്സിഡന്റ് ആണെങ്കിൽ അല്ലെ ആക്സിഡന്റ് ആണെങ്കിലും തളർന്ന് പോകുവ മരണപ്പെട്ടിട്ടില്ല തളർന്നു പോയി വെച്ചാൽ ഈ എമൗണ്ട് നമുക്ക് കിട്ടും അതേവോ ആ പിന്നെ കിട്ടുന്നത് പറയുന്നത് നമുക്ക് ആക്സിഡന്റ് പറ്റി കൈയ്യോ കാലോ അങ്ങനേതെങ്കിലും നമ്മടെ ബോഡി പാർട്ട്സ്ന് എന്തെങ്കിലും പറ്റുകയോ ഇല്ലെങ്കിൽ മുറിക്കണ്ടി വരികയോ അങ്ങനെന്തെങ്കിലും ആകുമ്പഴും നമക്കിതേപോലെ നമക്കതിന് രണ്ട് ലക്ഷം രൂപ വരെ കിട്ടും കാല് മുറിക്കണ്ടി വരിക അങ്ങനെന്തേലും പറ്റിയാൽ ആ ഓപ്പറേഷൻ പിന്നെ വരുന്നത് നമുക്കിപ്പോൾ ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയിട്ട് നമ്മൾ ഹോസ്പിറ്റലായി ഹോസ്പിറ്റലൈസ്ഡ് ആയെങ്കിൽ നമുക്കാ ഹോസ്പിറ്റൽ ചിലവായിട്ട് അം അമ്പതിനായിരം ടു ഒരു ലക്ഷത്തിന്റുള്ളില് നമ്മള് ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കുവാണെങ്കിൽ അവിടെക്ക് ഹോസ്പിറ്റൽ ബില്ലിന് ചിലവായ തുകയും നമുക്ക് ക്ലെയിമും കിട്ടും ക്ലൈംമ് ചെയ്യാൻ പറ്റും പിന്നെ ഇൻഷുറൻസ് കിട്ടാത്തൊരവസ്ഥാന്ന് പറയുന്നത് നമ്മടെ പകർച്ച വ്യാധികള് പനി അങ്ങനെയുള്ള പോലെ അസുഖമൊക്കെ വന്ന് മരിക്കൂലോ പകർച്ച വ്യാധികള് വന്ന് മരിക്കണ അസുഖം അതേപോലെ സൂയിസൈഡ് അറ്റംപ്റ്റ് സൂയിസൈഡ് ഇത് ഇങ്ങനെയുള്ള മരണത്തിനൊന്നും നമുക്ക് കിട്ടില്ല ഓക്കെ ഇൻഷുറൻസ് ആ ഇതിനിപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ നമുക്കിപ്പോൾ ആധാർ കാർഡ് വേണം അതേപോലെ ബാങ്ക് പാസ് ബുക്ക് പിന്നെ ഈ പാൻ കാർഡ് രണ്ട് ഫോട്ടോ ഇതൊക്കെയാണ് വേണ്ടത് ഇല്ല അതെൻ്റെ തന്ന് കഴിഞ്ഞാൽ ഞാനയിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്ത് നമ്മക്കയിൻ്റെ ഇൻഷുറൻസില് സ്ലിപ്പിൻറെ അതിൻ്റെ സ്ലിപ്പ് കാർഡ് എടുത്ത് തരാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് വർഷം ഫോണില് മൊബൈല് വഴി അടക്കുകയോ അല്ലെങ്കിൽ ഇവിടെ എൻ്റെൽ തരികയാണെങ്കിൽ ഞാൻ അടയ്ക്കുവോ അങ്ങനെന്തെങ്കിലും ചെയ്യവുന്നതാണ് ഓക്കെ അതെ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇരുപത് വയസ് ടു അമ്പത് വയസ് വരെയാണ് ഇതിൻ്റെ ഏജ് കാ ഇത് പറയണത് അപ്പം ഇരുപത് വയസ് മുതല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങള് ഈ അമ്പത് വയസ് കഴിഞ്ഞാൽ പറ്റില്ല ഇരുപത് വയസ് കഴിഞ്ഞാൽ നമക്കത് തുടങ്ങാം ഇതിപ്പോൾ തുടങ്ങി അമ്പത് വയസ് കഴിഞ്ഞാൽ നമുക്കിത് പെൻഷൻ പോലെ നമുക്കൊരു തുക വെച്ചിട്ട് എന്ന നമുക്ക് ഒറ്റ ടൈമില് ക്ളൈമ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ മാസം ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് കേറ്ണ പോലെയും ക്ളൈമാകും ഓക്കെ കാര്യം മനസിലായില്ലേ ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ആധാർ കാർഡൊന്ന് കൊണ്ട് വന്നിട്ടുണ്ടൊ ഇല്ലാല്ലോ ഓക്കെ ആയിക്കോട്ടെ ശരി താങ്ക്യൂ